ഞാൻ ഓൺലൈൻ പർച്ചേസിനായിട്ട് ഒരു കുർത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടു നല്ല പ്രതീക്ഷയോടെ ഓർഡർ ചെയ്തൊരു കുർത്തയായിരുന്നു പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ സൈസ് സ്മോൾ സൈസാണ് ഞാൻ കൊടുത്തിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് മീഡിയം സൈസാണ് പോരാത്തതിന് ആ ഫോട്ടോയിൽ കാണിച്ച അതേ കളറേ അല്ല ഞാൻ കണ്ടതൊരു യെല്ലോ കളറായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ബ്ലാക്കാണ് അത് മാത്രവുമല്ല തുണിയുടെ ക്വാളിറ്റി വൈസ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അത്